ഞാൻ ആറാം വയസ്സിലാണ് പണ്ടുകാലത്ത് ആശാൻ പള്ളിക്കൂടത്തിൽ ചേർന്നത് എൻ്റെ ഒരു അമ്മാവനായിരുന്നു എന്നെ എഴുത്തിനിരുത്തിയത് ആദ്യം പീച്ചാനിക്കാട് ചാക്കരപ്പറമ്പ് ഒരു ആശാൻ പള്ളിക്കൂടത്തിൽ ചേർന്ന ഞാൻ എൻ്റെ സഹോദരിയും ഉൾപ്പെടെ ഞങ്ങൾ അ ആ ഇ ഈ അങ്ങനെയുള്ള അക്ഷരമാലയെല്ലാം പഠിച്ചത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ട ഒരു പ്രക്രിയ തന്നെയായിരുന്നു അന്ന് ആശാൻ പള്ളിക്കൂടത്തിൽ മണലിലാണ് എഴുതി പഠിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു അത് ഒന്നാം ക്ലാസിലാണ് ആ സ്ലേറ്റിൽ എഴുതി പഠിച്ച് പഠിച്ചു തുടങ്ങി പഠിച്ചത് പൂർത്തീകരിച്ചത് അങ്ങനെ അഞ്ചാം ക്ലാസ് വരെയാണ് മലയാളം ഭംഗിയായിട്ട് എഴുതാനും വായിക്കാനും ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഇന്ന് എനിക്ക് മലയാളത്തിലുള്ള ദിന പത്രങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാം മാതൃഭാഷയിൽ എല്ലാ പരിപാടികളും മാതൃഭാഷയിൽ ആക്കിയത് കൊണ്ട് സർക്കാരിൻ്റെ അറിയിപ്പുകളും മറ്റ് എല്ലാ കാര്യങ്ങളും തന്നെ വായിച്ച് അറിയാനായിട്ട് അറിയാനായിട്ട് മലയാളം അത്യന്താപേക്ഷിതമാണ്